എൻ്റെ കയ്യിലിരിക്കുന്നത് റിയൽ മീ ൻ്റെ സെറ്റ് ആണ് വലിയ കുഴപ്പമില്ലാത്ത സെറ്റ് ആണ് അത്യാവശ്യം ചാർജ് നിൽക്കുന്നുണ്ട് അത്യാവശ്യം ഒരൂ ഒന്നര രണ്ട് ദിവസത്തിൻ്റെ അടുത്ത് ചാർജ് നിൽക്കും വലിയ കുഴപ്പമില്ലാതെ ചാർജ് നിൽക്കുന്നുണ്ട് പിന്നേ നമ്മള് ചാർജ് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ ചാർജ് ആവും എന്താ പറയുക ചാർജ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ എങ്ങനെയാന്ന് വച്ചാൽ വലിയ കുഴപ്പമില്ല സിനിമ കാണാം അത്യാവശ്യം വൺ ട്വെൻറ്റി ഏയ്റ്റ് ജി ബി യാണ് എന്റെ കയ്യിൽ മെമ്മറി ഉള്ളത് പിന്നെ ആറ് ജി ബി റാം ഉണ്ട് ഹാങ്ങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഹാങ്ങൊന്നും ഇല്ല അത്യാവശ്യം ഗെയിം കളിക്കാം പബ് ജി അങ്ങനത്തെ കളിക്കാം പിന്നെ കുറെ കളിച്ച് കഴിഞ്ഞാ ഹാങ്ങ് ആകും എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു സെറ്റ് ആണ് കൊണ്ട് നടക്കാനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് നമുക്കിപ്പം ഇതിനകത്ത് ടൈ അതായത് സാധ മോഡൽ ചാർജർ ആണ് അപ്പം എവിടെ വേണമെങ്കിലും കൊണ്ട് പോയി കഴിഞ്ഞാലും എല്ലാവരുടെ അടുത്തും സാധാ മോഡൽ ചാർജർ ആണുള്ളത് അപ്പം നമുക്ക് എപ്പം വേണമെങ്കിലും കുത്തിയിടാം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല ഇപ്പോൾ ഐ ഫോണിന് ഒക്കെയാണെങ്കിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജർ മാത്രമുണ്ടെങ്കിലെ കുത്തിയിടാൻ പറ്റുകയുള്ള ഇതിന് അങ്ങനത്തെ വിഷയമൊന്നുമില്ല ഏത് ചാർജറിൽ വേണമെങ്കിലും കുത്തിയിടാം വലിയ കുഴപ്പമില്ല ഡിസ്പ്ലേയും വലിയ പ്രശമില്ലാത്തൊരു സാധാ ഒരു സെറ്റ് ആണ്